മികച്ചതും ആയാസരഹിതമായ ജീവിതം നയിക്കാൻ ഇന്നത്തെ ശാസ്ത്രസാങ്കേതികങ്ങൾ ഒരുപാട് നമ്മെ സഹായിക്കുന്നു ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്കീ ലോകത്തെ വാങ്ങിക്കാൻ സാധിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ മൊബൈലെടുത്ത് ഒന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ചായ എത്തുന്നു അതുപോലെതന്നെ വീട്ടിലിരുന്നുപോലും ജോലി ചെയ്ത് സമ്പാദിക്കാൻ ഇന്നത്തെ സമൂഹത്തിനു സാധിക്കുന്നു നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ സാധനങ്ങൾ യാതൊരുവിധത്തില് ചെലവ് കൂടാതെയും നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുകയാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖസൗകര്യങ്ങളിൽ ഒന്നാണ് ഇത് കാരണം പണ്ടുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഒരാഴ്ച മുന്നേ തീരുമാനിച്ച് അതിനെ ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് അത് വാങ്ങാനായി കഷ്ടപ്പെട്ട് ഇവിടെനിന്നും ബസ്സ് കയറി കവലയിൽ ചെന്നു വാങ്ങുന്നു എന്നാൽ ഇന്നത്തെ തലമുറ തങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇപ്പോൾ വേണമെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ലഭിക്കുന്ന രീതിയിൽ ഇൻറ്റർനെറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണിപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യാനുസരണമുള്ള സാധനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നു ഏറ്റവും മികച്ച ഉദാഹരണമാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ലോകം കിട്ടിയ സന്തോഷമാണ് കാരണം നമ്മൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി സാധനം നമ്മുടെ കൈകളിലേക്കെത്തും അതിന് നമ്മൾ പോയി വാങ്ങുകയോ അല്ലെങ്കില് നമ്മള് അതിൻ്റെ പിന്നാലെ ഓടുകയോ വേണ്ട അത് നമ്മള് ഓഡർ ചെയ്ത സ്ഥ സ്ഥലത്ത് നിന്നും അവിടുന്ന് തന്നെ നമുക്കൊരാൾ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടിപ്പോള് തരുന്നു നമ്മൾ ജസ്റ്റ് നമ്മുടെ മോ കയ്യൊന്നെടുത്ത് ഗൂഗിൾ പേ ചെയ്യണമെന്ന് മാത്രം